എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫോട്ടോഗ്രാഫി ഞാൻ പലതരം സ്ഥലങ്ങളിലും എവിടെ പോയാലും ഞാനെല്ലായിടത്തും വീഡിയോഗ്രാഫറായി ഇരിക്കാറുണ്ട് കാരണം വീഡിയോഗ്രാഫർ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫറെന്നു പറയുന്നത് ഒരു വികാരം തന്നെയാണ് എല്ലാവർക്കും അതു മനസ്സിലാകണം എന്നില്ല മറ്റു ചിലർ ഇത് ഉപജീവന മാർഗ്ഗമായി സൂക്ഷിക്കുന്നു കാരണം ഇതിൽ നിന്നു കിട്ടുന്ന തുകയും കൊണ്ടാണ് അവർ ജീവിക്കുന്നത് മറ്റു ചിലർ ഫോട്ടോഗ്രാഫികൾ പഠിച്ചിട്ടും എല്ലായിടത്തും പോയിട്ടും എല്ലാ പല തരം സൈസ് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളുമൊക്കെ എടുത്തിട്ടും അവർക്ക് ഒരു ലാഭമോ അവർക്ക് കൂലിയോ ലഭിക്കാറില്ല പക്ഷെ എന്നാലും അതിനോടുള്ള കൂടുതൽ ഇഷ്ടം കൊണ്ട് അവർ വീണ്ടും വീണ്ടും ഈ ഇവിടങ്ങളിൽ സഞ്ചരിക്കുകയാണ് ഫോട്ടോ എടുക്കുകയാണ് പലപ്പോഴും തോറ്റു പോയി എന്നു തോന്നിയിട്ടും താഴാതെ തോൽക്കാതെ അവർ ഈ പാതയെ പിന്തുടരുന്നു കാരണം അവർക്കതിനോടുള്ള ഇഷ്ടം നമ്മളെ മനസ്സിലാക്കിത്തരുന്നു ഫോട്ടോഗ്രാഫി പഠിക്കാൻ കഴിയില്ല കാരണം അത് പഠിക്കാൻ കഴിയും പഠിച്ചെടുക്കാൻ കഴിയില്ല എന്ന് പലരും പലമുറ പലകുറി പല തവണ പറഞ്ഞിട്ടുണ്ട്